പ്രധാനമന്ത്ര പോഷണ പദ്ധതിയെക്കുറിച്ച് പറയാമോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് പ്രധാനമന്ത്രീൻറ്റെ ഇതാണ് അംഗൻവാടികളിലൊക്കെ അതായത് ഗർഭിണികൾക്കൊക്കെ അതായത് ഗർഭം ധരിക്കുന്നത് തൊട്ട് അംഗൻ വാടികളിൽ നിന്നൊക്കെ ഇത് കിട്ടും അതായത് പോഷണം കിട്ടും അതായത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ആദ്യം ഒക്കെ ഗോതമ്പ് എണ്ണ കടല അങ്ങനത്തെ ഒക്കെ ആണ് കിട്ടുക പിന്നെപ്പിന്നെ അത് മാറി ചില അംഗൻവാടികളില് അവില് വെല്ലം അങ്ങനത്തെ ഒക്കെ കൊടുക്കാൻ തുടങ്ങി പിന്നേന്ന് വെച്ചാൽ ഇപ്പഴെന്ന് വെച്ചിട്ടുണ്ടെങ്കില് അത് കഴിഞ്ഞ് നമ്മള് പ്രസവം എല്ലാം കഴിഞ്ഞു കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ആറ് മാസം വരെ നമുക്ക് അത് തന്നെയാണ് കിട്ടുക പിന്നെ കുട്ടിക്ക് ആറ് മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അമൃതം പൊടി എന്ന് പറഞ്ഞ അതായത് നല്ല പോഷകം ഉള്ളൊരു ഫുഡാണ് അത് അത് കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ വളരെ നല്ലതാണ് എത്രയോ ഇൻഗ്രീഡിയൻസ് എത്രയോ പോഷകകരമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതാക്കിട്ടുള്ള ഒരു ഇതാണ് അമൃതം പൊടി അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നല്ലൊരു നല്ലൊരു പദ്ധതി ആണ് എല്ലാവർക്കും വളരെ ഉപകാരമാണ്